മലയാളികൾ അവരുടെ സാംസ്കാരികമായിട്ടുള്ള പാരമ്പര്യങ്ങൾ ആഘോഷിക്കാൻ മറ്റ് ആദരിക്കാനും മലയാള ഭാഷയാണ് കൂടുതലും ഉപയോഗിക്കുന്നത് മലയാള ഭാഷ എന്നു പറയുമ്പോൾ നമ്മുടെ കേരളീയർക്ക് മാത്രം അവകാശപ്പെടുന്ന ഒരു ഭാഷയാണ് എല്ലാവർക്കും എന്താ പറയുക എല്ലാവർക്കും നന്നായി സംസാരിക്കാനും മറ്റും മലയാളം ഭാഷ മലയാള ഭാഷയിൽ അറിയാവുന്നതാണ് മലയാള ഭാഷയെന്ന് പറയുമ്പോൾ ഒരുപാട് വലിയൊരു ഭാഷയാണ് ഒരുപാട് അക്ഷരങ്ങൾ ഉള്ള ഒരു ഭാഷയാണ് നമ്മൾ ആശയ വിനിമയം നടത്താൻ അല്ലെങ്കിൽ നമ്മൾ ഒരോ പാരമ്പര്യങ്ങളെക്കുറിച്ചും മറ്റും നമുക്ക് ആളുകളുമായി സംവദിക്കാനും ആശയ വിനിമയം നടത്താനും മലയാളം ഭാഷയാണ് നമ്മളെ സഹായിക്കുന്നത്